പാലക്കാട് ജില്ലയിൽ പലതരത്തിലുള്ള പ്രാദേശിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട് കുട്ടികളുടെ കള കഴിവ് പലതരത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് വിദ്യാഭ്യാസം വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് വിദ്യഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പം ജോലിയും അല്ലെങ്കിൽ കൈത്തൊഴിലും ലഭ്യമാകുന്നതായിരിക്കും പാലക്കാട് ഐ ടി ഐ പാലക്കാട് ഐ ഐ ടി പാലക്കാട് മെഡിക്കൽ കോളേജ് മുതലായ വളരെ ഉന്നത വിദ്യാഭ്യാസ ശാലകളും പാലക്കാട് നിലവിലുണ്ട് മറ്റു ചെറു വിദ്യാഭ്യാസ ശാലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ ടെക്നിക്കൽ കോഴ്സുകൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ ശാലകൾ മുതലായ വിദ്യാഭ്യാസ ശാലകളും പാലക്കാട് ഉണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന പഠനരീതികൾ സംഭാവന ചെയ്യുന്ന ഒരുപാട് വിദ്യഭ്യാസ ശാലകൾ പാലക്കാട് ഉണ്ട് അതിലൂടെ കുട്ടികൾക്ക് നല്ലൊരു ജോലി അവസരങ്ങളും നല്ല വിദേശ ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നു